ഗ്രാമപ്രദേശത്തു നടക്കുന്ന കളികളിലൂടെയാണ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിലേക്കെത്തിക്കിടക്കുന്ന വലിയ ഫുട്ബോളർമാരും ക്രിക്കറ്റർ മാ ക്രിക്കറ്റ് കളിക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഗ്രാമങ്ങളിലൂടെയുള്ള കളികളിലൂടെയാണ് അവരൊക്കെ ലോകത്തറിയപ്പെട്ട കളിക്കരായി മാറിയിട്ടുള്ളത് ഏ ഇപ്പോൾ പെലെ പിന്നേ മെസ്സി ഇവരൊക്കെ ചെറിയ പ്രായത്തിൽ ഗ്രാമാന്തരങ്ങളിലൊക്കെ കളിച്ച് അങ്ങനെ പട്ടിണിയും പരിവട്ടമൊക്കെയായി അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ കഴിവുകൊണ്ട് എത്തിപ്പെട്ടതാണ് അങ്ങനെ നമ്മളുടെ സാമൂഹിക ഇടപെലു ഇടപെടലുകളൊക്കെ അതുകൊണ്ട് ഇപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ പോയി നമുക്ക് ഗ്രൗണ്ടുണ്ടാക്കുക അതുപോലെ ഏ നമുക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക അങ്ങനെയൊക്കെ സാമൂഹികമായ ഇടപെടലുകളൊക്കെ നടത്തി നമ്മൾ ഞമ്മടെ ചെറിയ കുട്ടികളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കാൻ കഴിയുന്നതാണ് എത്തുന്നത് മറ്റ് ആവശ്യമുള്ള സ്പോട്സ് ഉപകരണങ്ങൾ പഞ്ചായത്തു വഴി നൽകുക പിന്നെ അക്കാദമികൾ ആരംഭിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ പ്രാസ കളികളൊക്കെ പ്രൊഫഷനാക്കി എടുക്കാൻ തന്നെ ആൾക്കാർക്ക് കഴിയും പോരാത്തതിന് ഓരോത്തർക്കും ഈ കൂ മൊബൈലിൽ കുട്ടികൾ കൂടുതൽ മൊബൈലിന് അടിമകളാകുന്നതൊക്കെ തടയാൻ കഴിയുന്നതോടൊപ്പം ഒരു പ്രൊഫഷൻ ഉണ്ടാക്കിയെടുക്ക് എടുക്കാൻ ചിലപ്പോൾ ഈ സാമൂഹിക ഇടപെടലുകൾ കൊണ്ട് സാധിക്കും